ഇന്ത്യൻ സിനിമകളെ കുറിച്ചേനിക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത് ഇന്ത്യൻ സംഗീതവും അതിനേക്കാൾ മികച്ചഭിപ്രായമാണ് എനിക്കുള്ളത് ഇന്ത്യൻ സിനിമകളെ തന്നെ നമുക്ക് പലതരമായി ഭാഗിക്കാൻ സാധിക്കും പലതരം വൈവിധ്യമാർന്ന മനോഹരമായ സിനിമകളായി നമുക്ക് ഭാഗിക്കുവാൻ സാധിക്കും പലതരം സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഒത്തൊരുമയെ കുറിച്ചിട്ടുള്ള അർത്ഥം പറയുന്ന ഒരു സിനിമയായിരിക്കാം അല്ലെങ്കിൽ വളരെ ക്രൂരമായി പോകുന്ന ഒരു ജീവിതത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമായാകാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും മനോഹരമായ അർത്ഥവത്തായ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്ന ഒരു സിനിമയാകാം എങ്ങെനെപോയാലും ഇന്ത്യൻ സിനിമകൾ വളരെയധികം മനോഹരമായി വരാറുണ്ട് ചില സിനിമകൾ നമുക്ക് വളരെ ദേഷ്യം ആയി തോന്നാറുണ്ടെങ്കിലും വളരെ ചീത്തയായി തോന്നാറുണ്ടെങ്കിലും പൊതുവെ ഇന്ത്യൻ സിനിമകൾ പലതരം വൈവിധ്യമാർന്ന സിനിമയാണ് ഉണ്ടാകാറ് ഇന്ത്യൻ സിനിമകളിൽ ചിലപ്പോൾ ഐറ്റംസോങ്ങുകൾ കാരണം മാത്രം ജയിച്ചുപോകുന്ന സിനിമകളുണ്ട് ചിലപ്പോൾ മാസ്സ് പടങ്ങൾ കുത്തു പാട്ടുകൾ ഒക്കെ ഉണ്ടായാൽ മാത്രം ജയിച്ചു പോകുന്ന സിനിമകളും ഉണ്ടാകും അല്ലാതെ അർത്ഥമില്ലെങ്കിലും ജയിച്ചു പോകുന്ന സിനിമകളും കാണും അത് ചുരുക്കങ്ങളിൽ മാത്രം പല ഞാൻ കണ്ട പല സിനിമകളും വളരെയധികം മനോഹരമായ സിനിമകളാണ് ഇന്ത്യൻ സംഗിതം വളരെ മനോഹരമാണ് കാരണം അത് കർണാടിക്ക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ ഒത്തിണക്കി ഉള്ള പാട്ടുകളാണ് ഞാൻ ഇന്ത്യൻ സിനിമയിലെ സംഗിതങ്ങളിൽ കേൾക്കാറുള്ളത് ചിലപ്പോൾ റാപ്പ് സംഗിതവും പോപ്പ് സംഗീതവും നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും ഇന്ത്യൻ സിനിമകളിൽ എനിക്ക് വളരെയിഷ്ടപ്പെട്ട ഒരു സിനിമ എന്നു പറയുന്നത് ഈയടുത്ത് ഇറങ്ങിയ മഞ്ഞുമേൽ ബോയ്സാണ് അതൊരു ജീവിതത്തെ അത് ഒരു രക്ഷാകര പ്രവൃത്തിയെ കാണിക്കുന്നൊരു സിനിമയായിരുന്നു അത് വളരെയധികം ഫേമസാവുകയും ചെയ്തായിരുന്നു ഞാൻ സിനിമകൾ കാണുമെങ്കിലും സീരിയലുകൾ കാണാറില്ല എൻ്റെ വീട്ടിൽ അങ്ങനെ സീരിയലുകൾ എന്നെ കാണിക്കാറില്ല ചെറുപ്പമുത്തലേ ഞങ്ങൾ സീരിയലുകൾ കണ്ട് ശീലിക്കാറില്ല എനിക്ക് കാണുകയാണെങ്കിൽ തന്നെ തമാശ ചേർന്ന സി സീരിയലുകൾ കാണാനാണ് എനിക്കിഷ്ടം സിനിമകളാകട്ടെ എനിക്ക് തമാശയും അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥവത്തായ സിനിമകൾ കാണാനാണ് എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ അല്ലെങ്കിൽ നടി എന്ന് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന നടൻ അല്ലെങ്കിൽ ഇന്ന നടി എന്നൊന്നുമില്ല ഞാൻ സിനിമകൾ കാണുമ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന അവർ ഏതെങ്കിലും നടന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നടിമാരുടെയോ അഭിനയം ഇഷ്ടപ്പെട്ടാൽ അതിനെ ഞാൻ പുകഴ്ത്തും അല്ല എന്നാല്ലാതെ എനിക്ക് അങ്ങനെ ഇന്ന ഇഷ്ട്ടപെട്ട അഭിനേതാവ് എന്നില്ല പക്ഷെ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ വളരെയധികം ഇഷ്ടമായി തോന്നിയിട്ടുള്ളത് വിൻസി അലോഷ്യസ് എന്നു പറഞ്ഞ ഒരു നടിയെയാണ് ആളുകൾ ആ സ്ത്രീ എടുക്കുന്ന സിനിമകൾ വളരെയധികം മനോഹരമാണ് വല്ല വളരെയധികം കഥയിൽ അർത്ഥവത്തുള്ള ഒരു കഥകളാണ് ആള് എടുക്കാറ് ആളുടെ അഭിനയവും അതുപോലെ തന്നെ മനോഹരമാണ് എനിക്കിഷ്ടമുള്ള സിനിമ ഗാനങ്ങൾ എന്നുപറയാൻ മേലഡീസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചിലപ്പോൾ കുത്തു പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാകാറുണ്ട് തമിഴ് പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുണ്ടാകാറുണ്ട് അതുപോലെതന്നെ നമുക്ക് കൂടുതൽ എനർജി നൽകുന്ന തരത്തിൽ കുത്തു പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറ് അല്ലെങ്കിൽ കൂടുതൽ എൻ്റെ അന്നത്തെ ദിവസം കുറച്ചും കൂടി എനർജിയിൽ നേരിടാൻ എനിക്ക് സാധിക്കാറുണ്ട് പിന്നേ എനിക്ക് ഇന്ത്യൻ സിനിമകളിലേ സിനിമാ ഗാനങ്ങൾ ഇഷ്ടം എന്നു പറയുന്നത് മേലഡീസ് ആണ് ആ മേലഡീസ് നമുക്ക് സമാധാനം നൽകും അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മളുടെ മൂഡ് ഒന്ന് കാം ആകും നമുക്ക് കുറച്ചും കൂടി സന്തോഷകരമായ നമ്മളുടെ ആ ദിവസം നമുക്ക് നയിക്കാൻ സാധിക്കും കുറച്ചും കൂടി സമാധാനപരമായി ആ ദിവസം നയിക്കാൻ സാധിക്കും

എന്നാൽ തമിഴ് സിനിമയിലെ അല്ലെങ്കിൽ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ അനിരുദ്ധ് എന്നുപറഞ്ഞ ഗായകനെ എനിക്ക് വളരെ ഇഷ്ടമാണ് ആളുടെ പാട്ടുകളും എനിക്ക് വളരെയധികമിഷ്ടമാകാറുണ്ട് മൂന്ന് വർഷമായി തുടർന്ന് അടുപ്പിച്ച് ആൾ അനിരുദ്ധ് എന്ന ഗായകൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനായി മുൻപന്തിയിൽ വന്നിട്ടുണ്ട്